ആ നമസ്കാരം നമസ്കാരം എന്താണ്

ആ അവിടെ കമ്പനിയിൽ ഇപ്പോൾ ജോലി വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കൽ വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പാക്കിംഗ് സെക്ഷനിലേക്ക് വേണം പാക്കിംഗ് സെക്ഷനും ഉണ്ട് അപ്പം രണ്ടും കൂടി ഒരുമിച്ചാണ് ഇവിടെ നമുക്ക് വർക്ക് വരണത് നമുക്ക് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും വർക്ക് ഉണ്ടാവില്ല ആ അപ്പോൾ നമുക്ക് പാക്കിംഗിൻ്റെ അതായത് ഗോഡൗണിലെ ബാക്കി കാര്യങ്ങളും കൂടി നോക്കാൻ വേണ്ടിയിട്ട് ആണ് ടോട്ടൽ ആയിട്ട് ആണ് നമുക്ക് വിളിക്കുന്നത് രണ്ട് വർക്കും കൂടി ചെയ്യണം നമുക്ക് ഓക്കെ ആണല്ലൊ അല്ലെ ആ ഓക്കെ അപ്പം നമുക്ക് വരേണ്ട സമയം എങ്ങനെയാണ് ചോദിച്ച് കഴിഞ്ഞാൽ രാവിലെ എട്ടരയ്ക്ക് നമുക്ക് അറ്റൻഡ് ആവണം അപ്പോൾ ലോഡുള്ള ദിവസങ്ങളിൽ നമുക്ക് രാവില കുറച്ച് നേരത്തെ വരേണ്ടെ ദിവസങ്ങളിൽ ലോഡ് ഉള്ള ദിവസങ്ങളിൽ നേരത്തെ വന്നു എന്ന് പറഞ്ഞാൽ അതിന് അനുസരിച്ച് നമുക്ക് പോവാൻ പറ്റും ആ നമുക്ക് ലോഡുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫുഡ്ഡ് എല്ലാം ഉച്ചയ്ക്ക് നമുക്ക് പുറത്ത് നിന്ന് അറേഞ്ച് ചെയ്തുതരും അതുപോലെ ഈവനിംഗ് ലോഡുളള ദിവസം നമുക്ക് വൈകുന്നേരം വരുന്നത് ചില സമയം വൈകാറുണ്ട് അപ്പോൾ നമുക്ക് അത് വണ്ടിയിൻ്റ ഡ്രൈവിംഗ് ഫീൽഡ് ആയതുകൊണ്ട് അറിയാമല്ലോ നമുക്ക് എന്തായാലും എല്ലാ സമയത്തും ഒരുപോലെ എല്ലാ ടൈമിലും വരാൻ പറ്റില്ല അതുപോലെ അത് അല്ലാത്ത ദിവസം നമുക്ക് ലോഡ് ഇല്ലാത്ത ദിവസം നമുക്ക് ഓഫീസിൽ ഒര് എട്ടരയ്ക്ക് എത്തിയാൽ മതി എട്ടരയ്ക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ദിവസങ്ങളിൽ വരണത് സ്റ്റോക്ക് എടുക്കൽ ആയിരിക്കും സ്റ്റോക്ക് എടുക്കണം അതുപോലെത്തന്നെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ സപ്ലൈക്ക് വേണ്ട സാധനങ്ങളുടെ പാക്കിംഗ് ആണ് അപ്പം ഫുഡ്ഡ് ആയിട്ടും ഉണ്ട് നമുക്ക് പ്ലാസ്റ്റിക്ക് ആയിട്ടും ഉണ്ട് അപ്പം എല്ലാ സാനങ്ങളുടേയും പാക്കിംഗ് അത് ഏത് ആണോ കുറവ് അതിന് അനുസരിച്ചിട്ട് നമുക്ക് അത് മാനേജ് ചെയ്തിട്ട് ചെയ്യണം നമുക്ക് ഈ ഓഫീസിൽ വർക്ക് വരുന്ന ദിവസം ഫുഡ്ഡ് എല്ലം നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുവരണം ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞ് പോവാനും പറ്റും ഇങ്ങനെ ആണ് നമുക്ക് വർക്കിൻ്റ ഒരു മോഡ് വരണത് നമുക്ക് അങ്ങനെ കുഴപ്പം ഇല്ലല്ലൊ അല്ലെ ആ ഒമ്പത് മണി ആവുമ്പോൾ ആ ലോഡ് ഇല്ലാത്ത ദിവസം നമുക്ക് ഒമ്പതുമണി ആയാലും കുഴപ്പം ഒന്നും ഇല്ല പക്ഷെ അത് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കയിഞ്ഞാൽ ഒരു നമുക്ക് അതിനെ വച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം കുഴപ്പം ഒന്നും ഇല്ല നമുക്ക് ലോഡ് ഇല്ലാത്ത ദിവസം നമ്മളെ സമയം ഇപ്പം അഞ്ച് മണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കയിഞ്ഞാൽ ഒരു അര മണിക്കൂർ നേരത്തെ പോകണം ഒരു മണിക്കൂർ നേരത്തെ പോകണം പറഞ്ഞാൽ പോവുകയൊക്കെ ചെയ്യാം നമുക്ക് ലോഡ് ഇല്ലാത്ത ദിവസം ഒക്കെ അതിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽമതി ഇടയിൽ ഒരു ബാംഗ്ലൂർ അങ്ങനെ ലോങ്ങ് ഓട്ടം വരും നമുക്ക് പോവാൻ കുഴപ്പം ഒന്നും ഇല്ലല്ലൊ അല്ലെ മാസം നമുക്ക് ഒരു പതിനാല് അല്ലെങ്കിൽ ഒരു പതിനാറ് അതിൽ കൂടുതലൊന്നും നമുക്ക് ഉണ്ടാകാറില്ല ആ പതിനാറ് കഴിച്ച് ആ മെയിൻ്റസ് പറയുമ്പം നമ്മൾ എന്തായാലും ആ വണ്ടി നമ്മൾ ടോട്ടൽ ആയിട്ട് നോക്കണം അപ്പം അതിനകത്ത് ഇപ്പോൾ നമ്മൾ കമ്പനി സർവ്വീസിന് തന്നെ ആണ് കൊടുക്കണത് അപ്പം നമ്മൾ പത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അത് ആ ടൈമിൽ കമ്പനി സർവ്വീസ് നോക്കണം ബാക്കി മെയിൻ്റനൻസ് എന്ന് പറയണത് വണ്ടി കഴുകൽ അത് നമുക്ക് വർക്ക് തിരക്ക് വർക്കിന് ബാധിക്കാത്ത രീതിയിൽ വണ്ടി മെയിൻ്റയിൻ ചെയ്താൽമതി നമുക്ക് ഇപ്പോൾ ലോഡുള്ള ദിവസം രാവിലെ വണ്ടി കഴുകാനും പിടിക്കാനും ഒക്കെ നിന്ന് കയിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സമയം പോകും ഏഹ് അപ്പം ആ അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് വർക്ക് കുറച്ച് കുഴപ്പം ഇല്ല അല്ലെങ്കിൽ തിരക്ക് ഇല്ലാത്ത സമയം ആണ് നമ്മുടെ ലോഡ് ഒക്കെ പോയി നിൽക്കുകയാണ് വണ്ടി വെറുതെ നിൽക്കുകയാണെങ്കിൽ ഇവിടെയും വർക്ക് ഇല്ലായെന്നുള്ളെ ദിവസങ്ങളിൽ മാത്രം വണ്ടി ഒന്ന് കഴുകി ഇടുക വണ്ടിയിലെ ബാക്കി കാര്യങ്ങൾ മാത്രം ആ ചെയ്താൽമതി നമ്മൾ വർക്കിനെ യാതൊരു വിധത്തിലും അത് ബാധിക്കാത്ത രീതിയിൽ വണ്ടിയിൻ്റ മെയിൻ്റനൻസ് അതായത് കഴുകലും കാര്യങ്ങളൊക്കെ മാത്രം പിന്നെ വേറെ എന്തെങ്കിലും മെയിൻ്റനൻസിനെ നമുക്ക് ആ പറഞ്ഞോളൂ ഇപ്പം നിലവിൽ വണ്ടിക്ക് ഒരു കംപ്ലയിൻ്റും ഇല്ല ഇപ്പം സർവ്വീസ് കഴിഞ്ഞ് വന്നതാണ് ഇപ്പം ഒരു ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ സർവ്വീസിന് ഒന്നു കൂടി കൊടുക്കണം അപ്പം കൊടുത്ത് കയിഞ്ഞാൽത്തന്നെ നമുക്ക് മാക്സിമം ക്ലിയർ ആക്കാം ഈ ബാക്കി ഉള്ളത് നിങ്ങൾ അതൊന്ന് ഇന്നും നാളെയും അത് ഒന്ന് ഓടിച്ചിട്ട് മുഴുവനായിട്ട് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പം എന്തായാലും ഈ ആഴ്ച്ച കഴിഞ്ഞ് വന്ന് സർവ്വീസിന് കൊടുക്കണ സമയത്ത് ഒന്ന് പറഞ്ഞു കയിഞ്ഞാൽ അത് ഒരുമിച്ച് ഇത് ചെയ്യാൻ പറ്റും

ആ ഇന്ന് ആ ഇന്ന് നോക്കുകയാണെങ്കിൽ അതാ എടുത്തോളൂ വണ്ടി ചാവി അവിടെ ഓഫീസിലുണ്ട് മേടിച്ചോ